നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ചെയ്യുന്നുണ്ട് സാറെ ഇപ്പോൾ വെഡിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് പന്തലിൻ്റെ പണിതൊട്ട് ഫുഡ് കാര്യങ്ങൾ ഫോട്ടോഗ്രഫി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊടുക്കുന്നുണ്ട്

നമ്മൾ പ്രീവെഡിങ്ങ് ഷൂട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുക ആ ഓക്കെ എത്ര പേരുടെ ഫംഗ്ഷനാണ് സർ ആ ഓക്കെ പന്തലിടാനുള്ള സ്ഥലമൊക്കെ നിങ്ങളിതാക്കുന്നുണ്ടോ അതോ ആഡിറ്റോറിയം അങ്ങനെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം പിന്നെ ഫുഡ് ഫുഡ് എങ്ങനെയാണ് ഫുഡ് വെജ് ആണോ നോൺ വെജാണോ ആ രണ്ടും വേണമല്ലേ ആ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ നിങ്ങളപ്പോൾ എത്രപേരുടെയാണ് എണ്ണമൊക്കെ നോക്കീട്ട് കറക്റ്റ് മെമ്പേഴ്സ് എത്രപേരുവരുമെന്നുള്ളത് നോക്കീട്ട് നമുക്കൊരു കണക്കുപറയാണെങ്കിൽ ഞങ്ങൾ ഏകദേശം ഫുഡിൻ്റെ ഇത് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഫുഡിലെന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവുന്നെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളതിനകത്ത് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഓർഡറും കറക്റ്റ് എല്ലാം പറഞ്ഞു തരുവാണെങ്കിൽ ഞങ്ങളതിനനുസരിച്ച് റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരാം ഓ വൈ നോട്ട് അത് നമ്മൾ എന്തായാലും നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയാ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇതാണല്ലോ അപ്പം ഞങ്ങളുടെ പ്രെസ്റ്റീജിനെ ബാധിക്കുന്നോണ്ട് ഞങ്ങളെന്തായാലും നല്ലരീതിയ്ക്കന്നേ അത് ചെയ്യോള്ളു സർ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എല്ലാം നമ്മളന്നെ ചെയ്യും ആ ഓക്കെ അപ്പം എന്നത്തേക്കാണ് വെഡിങ് പരിപാടി എന്നാണ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അത് ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം സാറ് ജസ്റ്റ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് എന്തേലും ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ സാറിന് ചെയ്യാൻ കഴിയില്ലേ ഓക്കെ ഓക്കെ അപ്പോൾ സാറ് എന്തായാലും നോക്കീട്ട് നമ്മളെ വിളിച്ചാൽ മതി ഞങ്ങൾ വന്ന് ചെയ്തു തരാം ഓക്കെ ആയിക്കോട്ടെ